മിക്ക വ്യക്തികൾക്കും ഉള്ളൊരു പാഷൻ ആണ് ബൈക്ക് ഓടിക്കുക അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കാൻ പഠിക്കുക ഇപ്പോൾ നമ്മളൊരു നമ്മുടെ നാട്ടിൽ പോകുന്ന ഏതൊരു വ്യക്തിയും ബൈക്ക് കണ്ടാൽ നമ്മൾ ബൈക്ക് ഒന്ന് ബൈക്കിൻ്റെ ഹോൺ അടിക്കുക അല്ലെങ്കിൽ ബൈക്കിൻ്റെ ത്രോട്ടിൽ ഒന്ന് തിരിച്ച് നോക്കുക എന്നതൊക്കെ നമ്മുടെ ഇവിടെ കാണാറുള്ളതാണ് അത് ഏതൊരു കുട്ടികളായാലും ഒരു ബൈക്കും കൊണ്ടൊരു മുതിർന്ന വ്യക്തി പോകുമ്പം കുട്ടികളൊക്കെ അടുത്ത് വന്ന് ബൈക്ക് ഏതാണ് ചേട്ടാ അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മളോട് ചോദിക്കാറുണ്ട് ബൈക്കിങ്ങിൽ ബൈക്കിൻ്റെ ത്രോട്ടിൽ ഒന്ന് തിരിക്കുവോ ഇപ്പോൾ ബൈക്കിൻ്റെ ഹോണിൻ്റെ സൗണ്ട് ആയാലും കേൾക്ക് കേൾക്കുമ്പോഴൊക്കെ പല കുട്ടികൾക്കും പല രീതിയിലുള്ള സന്തോഷങ്ങളുണ്ടാവാറുണ്ട് ബൈക്ക് ഓടിക്കുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള നമുക്ക് ഭയങ്കര സന്തോഷമാണ് കിട്ടുന്നത് ഇപ്പം സ്പീഡിൻ്റെ കാര്യത്തിലായാലും നല്ല രീതിയിൽ സ്പീഡ് സ്പീഡിൽ പോകുമ്പം നമുക്ക് ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് ബൈക്കിൻ്റെ സ്പീഡ് കൂട്ടുമ്പം നമ്മൾ ഓടിക്കുന്ന വ്യക്തികൾക്ക് പല തരത്തിലുള്ള സന്തോഷങ്ങളും കാര്യങ്ങളും ഉണ്ടാവാറുണ്ട് നമ്മൾ ബൈക്ക് ഓടിക്കുമ്പോൾ നമുക്ക് എനർജി എനർജി കൂടുന്നതുപോലെ നമുക്ക് നല്ലൊരു ഫീൽ ആണ് നമ്മൾ നമുക്ക് കിട്ടുന്നത് ബൈക്ക് ഓടിക്കാതെ കുറച്ച് നാൾ ഇരുന്നിട്ട് ബൈക്ക് ഓടിക്കുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള നമ്മുടെ മനസ്സിനൊക്കെ നല്ല രീതിയിലുള്ള സന്തോഷവും കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കാറുണ്ട് നല്ല രീതിയിലുള്ള ബൈക്ക് ഓടിക്കുക അല്ലെങ്കിൽ കൂടിയ സി സി ഉള്ള ബൈക്ക് ഓടിക്കുക എന്നതാണ് ഏതൊരു വ്യക്തിയുടെയും ആഗ്രഹം നമ്മൾ ഇപ്പോൾ ഒരു കുറഞ്ഞ വിലയുള്ള ഒരു കുറഞ്ഞ സി സി ഉള്ള ഒരു ബൈക്ക് മേടിച്ചാലും മേടിച്ച് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പം പിന്നെ ഒരു നല്ലൊരു പുതിയ ബൈക്ക് ഒരുപക്ഷേ നമ്മുടെ മൊബൈലിലോ അതിൻറെ ഒക്കെ ഫോട്ടോയോ അല്ലെങ്കിൽ അതിൻറെ ഒരു വീഡിയോ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ നമുക്കത് ആ ബൈക്ക് എടുക്കാൻ നമുക്ക് അത് തോന്നും അത് നമ്മുടെ പാഷൻ കൊണ്ടാണ് നമുക്ക് ബൈക്ക് ഓടിക്കാനുള്ള ആഗ്രഹം നമ്മൾ ബൈക്ക് കാണുമ്പോൾ അതിനോടുള്ള നമുക്കൊരു സന്തോഷവും കാര്യങ്ങളും കൊണ്ട് നമുക്ക് അങ്ങനെ തോന്നുന്നത്

നല്ല രീതിയിൽ പരിപാലിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോവുക എന്നത് നമ്മളെ ഭയങ്കര സന്തോഷം ആക്കുന്നൊരു കാര്യമാണ് നല്ലൊരു ബൈക്ക് എടുത്താൽ നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരായാലും ഇപ്പം നമ്മുടെ വീട്ടുകാരായാലും ഒക്കെ നമ്മളെ നോക്കുന്ന നല്ല രീതിയിൽ ബൈക്ക് എടുത്താൽ മാത്രം പോര അതിനെ നല്ല രീതിയിൽ പരിപാലിക്കാനും ചെളിയും കാര്യങ്ങളൊന്നും ഇല്ല കുഴപ്പം ഉണ്ട ഉണ്ടാവാതെ നല്ലതിൽ കൊണ്ടു പോവാനും സാധിക്കണം ഇപ്പോൾ ബൈക്കിന് എന്തെങ്കിലും ഒരുപക്ഷേ കേട്പാള് കേടുപാടുകളൊക്കെ ഒരുപക്ഷേ പറ്റും അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് അപ്പം കേടുപാടുകളൊക്കെ പറ്റിയാലും അതിനെ നല്ല രീതിയിൽ നന്നാക്കി നല്ല രീതിയിൽ പുത്തൻ പോലെ നല്ല ഇതിൽ നീറ്റും അതായത് നല്ല വൃത്തിയുമായിട്ട് കൊണ്ടുനടക്കണം എന്നുള്ളതാണ് ഏതൊരു വ്യക്തിയും ഒരു ബൈക്ക് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയുടെ ഏതൊരാഗ്രഹവും അത് നല്ല രീതിയിൽ നടത്താൻ തന്നെയാണ് എല്ലാവരും ശ്രമിക്കുള്ളൂ ബൈക്ക് ഓടിപ്പിക്കുമ്പോൾ നമുക്ക് സ്പീഡും ഒക്കെ കൂട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവാറുണ്ട് നല്ലതിൽ എനർജി ആയാലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പാഷൻ ഏതൊരു ബൈക്ക് ഇഷ്ടപ്പെടുന്ന ഏതൊരു കൊച്ചു കുട്ടിയുടെ ആഗ്രഹം തന്നെയാണ് ഒരു ബൈക്ക് സ്വന്തമായിട്ട് മേടിക്കുക സ്വന്തം പൈസ കൊടുത്ത് മേടിക്കുക എന്നുള്ളത് ഏതൊരു വ്യക്തിയുടെയും സന്തോഷമാണ് ഏതൊരു കുട്ടിയുടെയും ആഗ്രഹമാണ് പല ആൾക്കാർക്കും സ്വന്തമായിട്ടൊരു ബൈക്ക് മേടിക്കാൻ പണമില്ലാത്ത അനേകം വീടുകളുണ്ട് അവരൊക്കെ ഒരുപക്ഷേ സ്വന്തമായിട്ടൊരു ജോലിക്ക് പോയിയും സ്വന്തമായിട്ട് പണം സമ്പാദിച്ചൊക്കെയാണ് കൂടുതൽ ആൾക്കാരും ബൈക്ക് മേടിക്കാറുള്ളത് അത് ബൈക്കിൻ്റെ പാഷൻ എന്ന രീതിയിലാണ് മ്പ ഒരു ബൈക്ക് മേടിക്കണം സ്വന്തമായിട്ടൊരു ബൈക്ക് മേടിക്കണം എന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് പല രീതിയിലും ജോലിയില്ലാത്തൊരു വ്യക്തികളായാലും പൈസ കൊടുത്ത് ഒരു ബൈക്ക് മേടിക്കുന്നത് നല്ലൊരു ബൈക്ക് മേടിച്ച് കൊണ്ടുനടക്കണം എന്നുള്ളത് ഏതൊരു ആൺകുട്ടിയായി പോലെ പെൺകുട്ടി ആയാലും കുഴപ്പമില്ല ഇപ്പോൾ ഈയൊരു കാലത്ത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് നല്ല സി സി ഉള്ള നല്ല ബൈക്ക് മേടിച്ച് നല്ല രീതിയിൽ ഒരു കേടുപാടുകളും പറ്റാതെ ഒരു എൻജിൻ പണിയായാലും ഒരു വണ്ടിയുടെ ഏത് ഭാഗത്തുള്ള പണിയായാലും ഒന്നും ഉണ്ടാവാതെ കൊണ്ട് നടക്കുക എന്നുള്ളത് ഏതൊരു വ്യക്തിയുടെയും ആഗ്രഹമാണ് നല്ല രീതിയിൽ സ്പീഡ് എത്ര കൂട്ടിയാലും നല്ല രീതിയിൽ ഒരു ഒരു ബൈക്ക് ഓടിക്കുന്നൊരു വ്യക്തിയുടെ കയ്യിൽ എപ്പോഴും നല്ലൊരു കൺട്രോൾ ഉണ്ടായിരിക്കണം സ്പീഡ് നല്ല രീതിയിൽ സ്പീഡിൽ പോയാലും കൺട്രോൾ ഉണ്ടായിരിക്കണം ഒരു അപകടവും പറ്റാതെ ബൈക്കിനൊരു പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ബൈക്കിനായാലും നമുക്കായാലും ഒരു പ്രശ്നങ്ങളുണ്ടാവാതെ ബൈക്ക് ഓടിക്കും എന്നുള്ളൊരു വിശ്വാസം ഏതൊരു വ്യക്തിയിലും ഉണ്ടായിരിക്കണം ബൈക്ക് ഓടിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്നാ എന്ന് വെച്ചാൽ ഹെൽമറ്റ് വെച്ച് സുരക്ഷിതമായിട്ട് റോഡിൽ കൂടെ വണ്ടി ഓടിക്കുക നമുക്ക് ഒരു അപകടം പറ്റരുത് നമ്മൾ കാരണം ബൈക്ക് ഓടിച്ചുകൊണ്ട് മറ്റ് എതിർ ഭാഗത്തു നിന്ന് വരുന്ന വ്യക്തികൾക്കും ഒരു അപകടം പറ്റരുത് എന്നതാണ് ഏതൊരു ബൈക്കറുടെയും പ്രധാനമായിട്ടുള്ളൊരു ആഗ്രഹം അത് അവർക്ക് വേണ്ടതും അത് തന്നെയാണ്